തീയിൽ പാചകം ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് ഗ്യാസിനെക്കാട്ടിലും ഇൻഡക്ഷൻ കുക്കർ അടുപ്പിനേക്കാട്ടിലും വളരെ പെട്ടെന്ന് പാചകം ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഒരു പ്രശ്നം ഉണ്ട് തീയിൽ പാചകം ചെയ്യുന്നത് ചെറു ചെറുതായിട്ട് പുകയുടെ സ്മെൽ അല്ലെങ്കിൽ മണം അടിക്കും അതേസമയം ഗ്യാസിലോ ഇൻഡക്ഷൻ കുക്കറിലോ ആണെങ്കിൽ ആ പ്രശ്നങ്ങൾ വരില്ല അതാണ് ഒന്നാമത്തെ വ്യത്യാസം മാത്രമല്ല തീയിൽ പാചകം ചെയ്യുന്നത് മൺപാത്രങ്ങളിൽ ആണെങ്കിൽ വളരെ നല്ലത് അല്ലാതെ അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ അങ്ങനത്തെ പാത്രങ്ങളിൽ പാചകം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഭക്ഷണ വസ്തുക്കൾ കരിയാൻ സാധ്യതയുണ്ട് അതേസമയം ഗ്യാസിലാണെങ്കിൽ നമുക്ക് പിന്നെ തീ കുറയ്ക്കാനും കൂട്ടാനും പറ്റും അതേപോലെ അടുപ്പ് തീ കത്തികൊണ്ടിരിക്കുമ്പോൾ അടുപ്പിൽ നിന്ന് തീ എളുപ്പം മാറ്റുന്നത് മാറ്റാൻ നമുക്ക് സാധ്യമല്ല അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം